ഹലോ ഷെഫല്ലേ ആ എനിക്ക് ഒരു പേര്സണല് ഷെഫിനെ ആവശ്യമുണ്ടായിരുന്നു അപ്പോള് അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പം എൻ്റെയടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഷെഫ് വളരെ പ്രസിദ്ധനായാണ് ഇപ്പോള് ഷെഫിന്റെ അടുത്താണ് ഫ്രണ്ടിന് ആവശ്യം വരുമ്പോഴത്തേക്കും ആ ഫ്രണ്ടിന്റെ ക്ലയന്റിനെ ഹെല്പ് ചെയ്തത് ഷെഫ് ആണെന്ന് പറഞ്ഞു ഷെഫിന്റെ ഭക്ഷണമൊക്കെ വളരെ നല്ലതാണെന്ന് അഭിപ്രായങ്ങള് പലതും കേട്ടിട്ടാണ് ഞാന് വിളിക്കുന്നത് അപ്പം എനിക്ക് പേര്സണല് ഷെഫ് ആയിട്ട് എന്റെ വീട്ടില് വരാന് പറ്റുമോ അതോ ഹോട്ടലില് മാത്രമേയുള്ളൂ ആണല്ലേ എനിക്ക് കേരളത്തിന്റെ ഭക്ഷണങ്ങള് കഴിക്കാനായിരുന്നു കൂടുതല് താല്പര്യം കാരണം കൂടുതലും ഞാന് പുറത്ത് താമസിച്ചതുകൊണ്ട് കേരളത്തിലെ ഫുഡ് ഒന്നും അത്ര കഴിക്കാന് പറ്റിയിട്ടില്ല അപ്പം എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് സദ്യയ്ക്ക് എന്തൊക്കെ കറികള് ഉണ്ടാകും

അവിയലെന്നുവെച്ചാല് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ എല്ലാ ഫുഡും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാരണം എനിക്ക് ആരോഗ്യപ്രശ്നങ്ങളുണ്ട് ഡോക്ടര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് എല്ലാ ഭക്ഷണത്തിലും എണ്ണ ഒരുപാട് ഉപയോഗിക്കാന് പറ്റില്ല പിന്നെ മധുരം ഒരുപാട് പറ്റില്ല പിന്നങ്ങനെ കുറച്ച് കുറച്ച് ഉപയോഗിക്കാന് പറ്റാത്ത കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ഞാന് എന്റെ ഡോക്ടര് അതിനൊരു ഒരു ലിസ്റ്റ് പോലെ എഴുതി തന്നിട്ടുണ്ട് ഒരു ഡയറ്റ് പ്ലാന് ഒക്കെ അപ്പം അത് വെച്ചിട്ട് വേണം എനിക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കില് തരികയാണെങ്കില് ഞാന് വന്ന് ഷെഫിനെ കാണാമായിരുന്നു ഷെഫിൻ്റെ റസ്റ്റോററൻ്റ് എവിടെയാണുള്ളത് പത്തനംതിട്ടയില് തന്നെയാണോ ആ എന്നാല് ഞാനൊരു തിരുവല്ലായിലാണ് അല്ലേ അപ്പം ഷെഫിന് മാസം എങ്ങനെയാണ് പെയ്മെൻ്റ് ഒക്കെ ഒരു നാല്പ്പതൊക്കെ മതിയാകുമോ അന്പതാ ഞാന് നോക്കിയിട്ട് കൂടുതല് ആണെങ്കില് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കില് ഷെഫിന് ഞാന് പെയ്മെന്റ് എക്സ്ട്രാ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എനിക്കിങ്ങനെ ഫുഡ് ആരോഗ്യത്തിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഫുഡ് കൃത്യമായിട്ട് ന്യൂട്രിയെന്റ്സ് ഒക്കെ ശ്രദ്ധിക്കണം അപ്പോള് അതിന് ഡോക്ടറിൻ്റെ അത് കാണിച്ചിട്ട് എന്താണെന്നുവെച്ചാൽ ഉണ്ടാക്കി ഇപ്പം എൻ്റെ ഇവിടുത്തെ ഇനി എന്തെങ്കിലും സാധനങ്ങള് വാങ്ങിക്കണമോ എക്സ്ട്രാ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഷെഫ് പറയണം എന്തൊക്കെയാണ് ഇനി സാധനങ്ങള് വാങ്ങിക്കാനുള്ളത് എന്നൊക്കെ ഒന്ന് പറയണേ ആ ഓക്കെ ഞാനെന്നാല് ഷെഫിനെ വിളിക്കാം പിന്നെ കേട്ടോ